ഹലോ ആ എനിക്ക് കുറച്ച് മീൻ വേണമായിരുന്നല്ലോ ഫിഷ് മാർക്കറ്റല്ലേ ആ എനിക്ക് ആണോ എനിക്ക് കുറച്ച് മീൻ വേണമായിരുന്നു എന്തൊക്കെ മീനുണ്ട് ആ ആ ആറ്റു മീനെന്ന് പറയുമ്പം കരിമീനുണ്ടോ കരിമീൻ ആ എനിക്ക് കുറച്ച് കരിമീൻ വേണമായിരുന്നു എങ്ങനാണ് വില ഏഹ് കിലോയ്ക്ക് ആയിരത്തിന് മേലെയോ അതെന്തൊരു വിലയാണ് ഇത് ഈ ഈ അമ്പലപ്പുഴയൊക്കെ വിലക്കുറവ് ആയിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ ഇവിടൊക്കെ ഇപ്പം വില പിടിച്ച് മേടിക്കുവാണല്ലോ ഞങ്ങടിവിടെ കടയൊക്കെ ഞാൻ ഈ വിലയൊന്നും ഇല്ല കരിമീൻ അത്രയും വിലയൊന്നും ഇല്ല ഞങ്ങൾ പലയിടത്തൂന്നും വാങ്ങിക്കുന്നതാണ് ഇവിടുന്നിച്ചിരി ഫ്രഷായിട്ടുള്ള കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഫ്രഷാണെന്ന് വിചാരിച്ച് നിങ്ങളിത്രയും വില എടുക്കുന്നത് ശരിയല്ല ഫ്രഷായിക്കോട്ടെ ശരിയാണ് ഫ്രഷാകും പക്ഷേ കരിമീൻ അത്രയും വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ആറ്റു തീരത്തൊക്കെ കിടക്കുന്നവരാണ് പക്ഷേ എന്നാലും കരിമീൻ്റെ വില നിങ്ങളിത്രയും ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ഒക്കെ പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ മേടിക്കും അത് ശരിയല്ലല്ലോ നിങ്ങൾ പറയുന്നത് ഓക്കെ നിങ്ങൾ വെട്ടുന്നതിന് നിങ്ങൾ ചാർജെടുത്തോ എങ്കിലും ഇത്രേം വിലയാവോ നിങ്ങൾ വെട്ടുന്നതിന് ചാർജെടുത്തോ ഞങ്ങൾക്കതിനൊരു പരാതിയില്ല ഞങ്ങൾ പിന്നെ ഹരിപ്പാടുന്ന് മേടിച്ചു ആ ഞങ്ങൾക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ അൻപത് രൂപക്ക് കിട്ടിയല്ലോ അത് ചുമ്മാതൊന്നും പറയുന്നതല്ല ഞങ്ങൾ നല്ല സൂപ്പറ് കരിമീൻ ഞങ്ങൾ സൂപ്പറ് കരിമീൻ മേടിച്ച് കറി വെച്ച് കൂട്ടിയതിന് ശേഷമാണിപ്പോൾ ചോ ഞങ്ങൾ മേടിച്ചത് അത് ഞങ്ങൾക്ക് വന്ന് ഞങ്ങളുടെ ഗസ്റ്റ് വന്ന് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞങ്ങൾ വീണ്ടും അത് തിരക്കുന്നത് അപ്പോൾ അതാണ് ഞങ്ങൾ കരിമീൻ തന്നെ വേണമെന്ന് പറയുന്നത് അപ്പോൾ അത്രേം വില മാറി ഇല്ലില്ലില്ലില്ലില്ല ഇല്ലില്ലില്ല ഇല്ല ഞാൻ വാങ്ങിച്ച് നല്ല വെ നല്ല വലിയ കരിമീൻ വാങ്ങിച്ച് വെട്ടി ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് അവർ തന്നു ഞങ്ങൾ കൊണ്ട് പോയി അത് പാകം ചെയ്ത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് വീണ്ടും ഞങ്ങൾ കരിമീൻ മേടിക്കാനൊരുങ്ങിയത് ഞങ്ങളുടെ ഇവിടുള്ളവരെല്ലാം കുട്ടനാടുകാരല്ലേ ദൂരെന്ന് വന്നവർ കൂട്ടാനാഗ്രഹിച്ച് മേടിക്കാൻ വന്ന് കൂട്ടാൻ വേണ്ടി വന്നതാണ് അവർക്ക് വേണ്ടി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങളീ ഒന്നൂടെ ഫ്രഷായിട്ടുള്ളത് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ അവിടൊക്കെ ഫ്രഷ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളപ്പോൾ ഇത്ര ഓ ഇരുന്നൂറ് രൂപയൊക്കെ കുറച്ചാലെങ്ങനാണ് ഒരു ആയിരത്തി എത്ര നിങ്ങൾ ആദ്യം പറഞ്ഞ വില ഓ മാഡം അത്രയൊന്നും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല ഇല്ലില്ലില്ലില്ല ആ ഞങ്ങളെന്നാൽ വന്ന് വാങ്ങിച്ചോളാം ഞങ്ങളെ ഞങ്ങൾ വന്ന് വാങ്ങി നോക്കീട്ട് വാങ്ങിക്കാം എങ്കിലങ്ങനെ ആ എങ്കിൽ ഞങ്ങളങ്ങനെ വന്ന് മേടിക്കാം എങ്കിലും ആയിരത്തി ആയിരത്തിന് മേളിന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല അത് ചിലപ്പോൾ നല്ല സാധനം പോലും ആവോന്ന് എനിക്ക് സംശയം ഉണ്ട് അതാണിത്രയും വില കൂട്ടി നിങ്ങൾ മേടിക്കുന്നതെന്ന് പോലും എനിക്ക് സംശയം ഉണ്ട് ആ ഞങ്ങൾ വന്ന് കണ്ടിട്ടല്ലേ വാങ്ങിച്ചോളാം അല്ലേ ഞങ്ങൾക്ക് വേറെ ഞങ്ങളെവിടുന്നെങ്കിലും വാങ്ങിച്ചോളാം എന്താ

ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ വരാം കേട്ടോ അമ്പലപ്പുഴ എവിടായിട്ട് വരും ഓക്കെ ഓക്കെ ഓക്കെ